ആ ടീച്ചറേ എന്തുണ്ട് വിശേഷം ആ ആ സുഖമായിട്ടിരിക്കുന്നു അതെ അതെ അതെ നാളെ നമ്മൾ അത് സ്പോർട്സ് നടത്താനാണല്ലോ ഇരിക്കുന്നെ അല്ലേ നാളെ അപ്പം ഫസ്റ്റ് അവറ് പിരിയഡ് അങ്ങ് കഴിഞ്ഞിട്ടെ രണ്ടാമത്തെ പിരിയഡ് തൊട്ട് നടത്താം അല്ലേ അത് കഴിയുമ്പോൾ പിന്നെ ഉച്ചക്കത്തെ ബ്രേക്കിനോട് അങ്ങ് വിടാം പിള്ളേരെ അതല്ലേ നല്ലത് ആ ഫസ്റ്റ് അവറ് അതെ അതെ അതെ പിന്നീട് ഊണ് കഴിഞ്ഞിട്ട് ആ പിന്നെ ക്ലാസ് തുടങ്ങാം അതാ നല്ലത് ല്ലേ ആ അപ്പോൾ കുട്ടികളോടൊക്കെ ടൈം ടേബിള് ഏതൊക്കെയാ കൊണ്ടുവരേണ്ടത് എന്ന് പറയുമല്ലേ അല്ലേ ടീച്ചറ് ആ ഉച്ച കഴിഞ്ഞുള്ളതും കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞാൽ മതി കേട്ടോ ആ പിന്നെ എന്തുണ്ട് ടീച്ചറെ ടീച്ചിങ്ങ് നോട്ട് ഒക്കെ എഴുതിക്കഴിഞ്ഞോ മ്മ് എഴുതിക്കൊണ്ടിരിക്കുകയാ ആ ആ മറ്റന്നാളല്ലേ നമുക്ക് കാണിക്കേണ്ട ദിവസം മ്മ് സ്പോർട്സ് നമുക്ക് ഓട്ടം പിന്നേ എന്താണ് ഹൺഡ്രഡ് മീറ്റർ റിലേ പിന്നെ അത് രണ്ടും നടത്തിയാൽ മതി രണ്ടെണ്ണം നടത്തിയാൽ മതി ആ ആ യൂത്ത് ഫെസ്റ്റിവല് നടത്തണം അതിൻ്റെ കുട്ടികളെയൊന്ന് കണ്ട് പിടിക്കണം താല്പര്യമുള്ള കുട്ടികളോട് ആദ്യം ഒന്ന് അറിയിപ്പ് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ചെയ്യാം എന്താ നാളെ നമുക്ക് അങ്ങ് സ്കൂളിൽ വന്ന് ഡീറ്റൈൽ ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം എന്താ അതുപോരെ ആ അ ആ ആ അതെ ആ മഴയാണെന്ന് ഉണ്ടെങ്കിൽ കുട്ടികൾ ടൈം ടേബിൾ കൊണ്ട് വരണം എന്ന് പറയണം രാവിലെ മഴയാണ് എന്ന് ഉണ്ടെങ്കിൽ ടൈം ടേബിൾ പ്രകാരം കൊണ്ടുവരാൻ പറയണം അല്ലെങ്കിൽ പിന്നെ ഒരു പിരിയഡ് ഉച്ച കഴിഞ്ഞുള്ള പുസ്തകം കൊണ്ടുവരാൻ പറയാം എന്താ അതുപോരെ അതെ അതെ അതെ അതെ അതെ അതെ ആ മാഡം പോഷന് പോഷൻ ഒന്നും തീർന്നിട്ടില്ല അതിനി കവർ ചെയ്തിട്ടു വേണ്ടേ നമക്ക് ആ ആ അതെ അതെ അതെ അതെ അതെ ആ ആ എന്തായാലും ടീച്ചിങ്ങ് നോട്ട് ഒക്കെ എഴുതിക്കഴിഞ്ഞോ ആ ആ ആ ശരി ശരി എന്നാലെ എന്നാൽ ആ സുഖമാ മക്കളൊക്കെ ഇവിടുണ്ട് ആ മ്മ് കുഴപ്പം ഒന്നും ഇല്ല ആ എന്തോ ആ ഹലോ ആ ആ സുഖമായിട്ട് ഇരിക്കുന്നു കുഴപ്പം ഒന്നും ഇല്ല ശരി ശരി ആ